ഹലോ ഇത് അമ്പൂരി എന്ന പ്രദേശത്ത് നിന്നാണ് വിളിക്കുന്നത് ഇവിടെ ഞാൻ ഒരു സംഗീത ഉത്സവം സംഘടിപ്പിക്കുകയാണ് അതിന് ഏകദേശം പത്തോളം കലാകാരൻമാർ പങ്കെടുക്കുന്ന സംഗീതോത്സവമാണ് അതിന് ആവശ്യമായ വെള്ളം എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ വിളിക്കുന്നത് ഈ പരിപാടി നടക്കുന്നത് മുപ്പത് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലാം തിയ്യതിയാണ് സ്ഥലം അമ്പൂരി മെയിൻ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടത്തുന്നത് ഏകദേശം അമ്പതിനായിരം ആളുകൾ പങ്കെടുക്കുന്ന പരിപാടിയാണ് അതുകൊണ്ട് നമുക്ക് കുപ്പിവെള്ളം ഏകദേശം ഒരു ലക്ഷത്തോളം ആവശ്യമാണ് അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ ക്രമീകരണങ്ങൾ നിങ്ങൾ നടത്തുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെത്തന്നെ വിശിഷ്ട വ്യക്തികൾക്ക് നമ്മൾ കുറച്ചുകൂടെ ഗ്ലാസിൽ കൊടുക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് അതിനുള്ള ഗ്ലാസ്സ്കളും നിങ്ങൾ ക്രമീകരിക്കുമല്ലോ നല്ല വെള്ളം കുപ്പിയിലാക്കുവാനും ഇതുപോലെത്തന്നെ ജനങ്ങൾക്ക് കുടിക്കുവാൻ ക്യാൻ വഴി ഉള്ള ക്രമീകരണങ്ങളും നിങ്ങൾ ചെയ്യണം വിശദവിവരങ്ങൾ ഈ ഇതിനോടുകൂടി അയക്കുന്നതാണ് അതുകൊണ്ട് ഉത്സവത്തിൻ്റെ എല്ലാവിധ ക്രമീകരണത്തിനും ജലത്തിൻ്റെ ക്രമീകരണത്തിനും നിങ്ങൾ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു